ഹലോ ഞാനേ ഈ എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ കൊച്ചിൻ്റെ അല്ല എൻ്റെ ജ്യേഷ്ഠന്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒരു ഉടുപ്പ് ഉടുപ്പെന്നു പറഞ്ഞാല് ഒരു പാന്റും ഷർട്ടും ഓർഡർ ചെയ്തായിരുന്നേ അത് ഇതുവരെ എത്തിയതായി കാണുന്നില്ലല്ലോ എന്താണ് സംഭവിച്ചേ ഈ ട്രാക്കിംഗ് ഐ ഡി എന്തേലും കിട്ടുമോ ഷിപ്പ്ഡെന്നല്ല സ്റ്റാറ്റസ് മാത്രമേ കാണുന്നുള്ളു ഓർഡർ പ്ലേസ്ഡ് ഷിപ്ഡെന്നു കാണുന്നുണ്ട് എന്നാല് ഇതൊന്നും കാണുന്നില്ല അപ്പോള് ഈ എന്ത് ഇനി എങ്ങനെയാണ് ബർത്ത്ഡേക്കിനി ആകെ രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങള് എന്തെങ്കിലുമൊരു അപ്ഡേറ്റ് എങ്ങനെയാണ് നമുക്കു കഴിയുക ആ പിന്നെ പ്രത്യേകിച്ച് രണ്ടു ദിവസമേ ഉള്ളു ഏ എനിക്ക് ഭയങ്കര ആ ഇതുണ്ട് പേടിയുണ്ട് നിങ്ങള് ഡേറ്റ് കഴിഞ്ഞിട്ടു പിന്നെ കൊടുത്തിട്ടൊരു കാര്യവുമില്ലല്ലോ അപ്പോള് അതുകൊണ്ട് ഈ ഡേറ്റ് കൺഫേം ഷിപ്പിങ് ഷിപ്പിങ് ഓക്കെയാണ് ഷിപ്പിങ് രണ്ട് ദിവസം മുന്നേ തന്നെ നടന്നിട്ടുണ്ട് ആ ഇതിൻ്റെ ഫൈനൽ ഡെലിവറി എന്നാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയെയാണ് ഡെലിവറി ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നു കിട്ടാൻ എന്താ ചെയ്യുക അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഡിലേ ആക്കരുതു കെട്ടോ കാരണം അത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടു കൊടുത്തിട്ടൊരു കാര്യവുമില്ലല്ലോ ട്രെയിന് പോയിട്ട് കൈ കാട്ടിയിട്ടൊരു കാര്യവുമില്ലല്ലോ അപ്പേോള് നിങ്ങള് എന്ത് നിങ്ങള് എന്താണു ചെയ്യുക എനിക്ക് മെയിലെയ്യോ ട്രാക്കിങ് ഐ ഡി ഷിപ്പിങ് കഴിഞ്ഞു ഓക്കെ അതുപോലെ തന്നെ ഈ ഏജൻസി ഇണ്ടാവില്ലേ ഡെലിവറി ഏജൻസി അവരുടെ കോൺടാക്ട് നമ്പറും അല്ലെങ്കില് അവരുടെ ഡീറ്റെയിൽസ് എന്തേലും അല്ലെങ്കില് ഡെലിവറി ബോയുടെ ഡീറ്റെയിൽസ് എന്തേലും ഒന്ന് ഷെയർ ആക്കിത്തരുമോ ചെറിയൊരു ഇതുണ്ടായതുകൊണ്ടാണേ വേറെയൊന്നും വിചാരിക്കരുതേ ഓക്കെ താങ്ക്യൂ